ആ ഓക്കെ ആ ഓക്കെ സാർ ആ ഓക്കെ സാറെ എങ്ങന പ്രീമിയം ടൈപ്പ് ബൈക്കുകൾ ആണോ നോക്കുന്നത് നമ്മക്ക് ഇപ്പം ഏത് വണ്ടി ആണ് ചൂസ് ചെയ്യുന്നെ അതിന് അനുസരിച്ചാണ് സാറ് ഈ ഹിമാലയൻ ആ ടൈപ്പ് ഒക്ക അഡ്വഞ്ചർ ടൈപ്പ് വണ്ടികൾ ഒക്കെ ആണെ നമുക്ക് കൂടുതൽ വരുന്നത് ഒര് ടു തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ഒക്കെ ആണ് ആ ഓ ആ ഓ ഓല ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒര് തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ആ ഒര് ബഡ്ജറ്റിൽ കിട്ടും ആ ഓക്കെ നമുക്ക് ട്വൻറ്റി ഫോർ ഹവേർഴ്സ് വെച്ച് ആണ് ചാർജ് ചെയ്യുന്നത് ഓക്കെ ആ ഓക്കെ സാർ നമ്മക്ക് കോഴിക്കോട് തന്നെ ആണ് വരുന്നത് ബീച്ചിൽ നിയർ ആയിട്ടാ വരിക ആ ഓക്കെ പതിനഞ്ച് പതിനാറ് ഒക്കെ ആവും അല്ലെ ഓക്കെ സാറ് ഓൾമോസ്റ്റ് ഇപ്പം നമ്മക്ക് വണ്ടി ആ ഓക്കെ സാറിൻ്റെ ഇപ്പോൾ ലൈസൻസ് മാത്രം ആണ് നമ്മക്ക് പ്രൂഫ് ആയിട്ട് വേണ്ടി വരികയുള്ളൂ ഇപ്പോൾ വണ്ടി എടുക്കുന്ന ആക്ക് ലൈസൻസ് പ്രൂഫ് ആയിട്ട് വേണ്ടി വരും പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററ് പെട്രോള് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും അതീ കൂടുതൽ ആയാൽ നിങ്ങൾ ഇതിൻ്റ ബാക്കി വേണമെങ്കിൽ നിങ്ങൾ അടിക്കണം പിന്നെ പെർ ഡേ നമുക്ക് ഒരു ഫോർ ഹണ്ട്രഡ് കിലോമീറ്റേഴ്സ് ഒക്കെ ആണ് ഇതാക്കാ അത് കൂടുതൽ ഓടുവാണെങ്കിൽ സാറിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വരും പിന്നെ വേറെ എന്തേലും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഉണ്ടോ ആ ഓക്കെ പതിനാറാംതീ ആകും അല്ലെ സാർ എവിടെ എത്തിയത് കോയമ്പത്തൂര് ഓക്കെ സാറ് ഇങ്ങോട്ട് ഡയറക്റ്റ് എത്തിക്കൊള്ളാം നമ്മള് ക്യാബ് എന്തേലും അറേഞ്ച് ചെയ്ത് തരണോ എത്തിക്കോളും അല്ലെ ഇനി ക്യാബ് ഫെസിലിറ്റീസ് എന്തെങ്കിലും വേണെ സാർ ഒന്ന് കോൺടാക്ട് ചെയ്താമതി നമ്മൾ ക്യാബ് അറേഞ്ച് ചെയ്തുതരും ആ സാറ് കോഴിക്കോട് ഡയറക്റ്റ് കോഴിക്കോടിന്ന് ആണോ വരുന്നത്

ഹ്മ് അപ്പം എത്ര ആയിരുന്നു വണ്ടി എല്ലാം ഓക്കെ ഞാൻ എന്നാൽ അത് ബുക്ക് ചെയ്ത് ഇട്ടേക്കട്ടെ ഓക്കെ ബുക്കിംഗിൽ ഇടാൻ അല്ലെ ആ ഓക്കെ എന്നാൽ ഞാൻ നോക്കീട്ട് സാറിന് എന്തേലും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എന്തേലും ഇണ്ടെങ്കീ എന്നെ കോൺടാക്ട് ചെയ്താമതി ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് തരാം ആ ഓക്കെ സാർ